അതെ ലൈബ്രറിയാണല്ലോ ആ ആടുജീവിതം ഇവിടുണ്ടല്ലോ ആ മെമ്പര്ഷിപ്പ് നമുക്കെടുക്കാനായിട്ട് ഒരു ആയിരത്തഞ്ഞൂറു രൂപ പിന്നെ പേയ്മെന്റ് ചെയ്യണം ആ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അത് ന റീഫണ്ടബിളാണ് നമുക്കതവസാനം നിങ്ങൾ എപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് മെമ്പര്ഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നോ ആ സമയത്ത് പൈസ തിരിച്ച് തരും ആ പിന്നെ വല്ല ബുക്കിന് എന്തെങ്കിലു വല്ല ഡാമേജോ വല്ലതുമൊക്കെ വരുത്തുക ആണെങ്കിൽ നമുക്കാപൈസ അതില് നിന്ന് പൈസ കുറയ്ക്കും കാര്യമായിട്ടുള്ള ഇപ്പോൾ ചെ പിന്നെ ബുദ്ധി അല്ല ഡാമേജൊന്നും വരുത്തീട്ടില്ലെങ്കില് അതിന് നൂമിനൽ എമൗണ്ട് കുറയ്ക്കും അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം ഒന്നുമില്ല കറക്റ്റായിട്ട് ചെയ്യാണെങ്കില് ഫുള്ളൂ എമൗണ്ട് റീഫണ്ട് ചെയ്യും ഇപ്പോൾ സാധാരണ സാധാരണ വണ് വീക്കാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കാവശ്യമുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യാം അവിടിപ്പൊവന്നിട്ട് ഒരു ഒരു പ്രാവശ്യം കൂടെ റിന്യു ചെയ്ത വീണ്ടും സെവെന് ഡെയ്സെടുക്കാം അങ്ങനെയാണ് പിന്നെ വല്ല അത്യാവശ്യ കേസുകളിൽ യാത്രപോവോ വല്ലോ ആണ് നിങ്ങൾക്കങ്ങനെ ഒന്നോ രണ്ടോ ബുക്ക്സ് വേണം അങ്ങനെ നേരത്തെ ഒരു പ്രത്യേക രീതിലൊരു ഇവിടെവന്നൊരു പേപ്പര് എഴുതിത്തന്നാല് ഞങ്ങൾ കൂടുതൽ സമയത്തേക്ക് വേണമെങ്കിലും തരാം ഞങ്ങൾ ഇവിടെ മ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഈ നാല് ലാംഗ്വേജിലുള്ള ബുക്ക്സ് നമുക്കിവിടെ അവൈലബിളാണ് ആ ഇവിടൊരു പത്ത് മുപ്പത് പേര്ക്കിരിക്കാനുള്ള സൗകര്യമുണ്ട് ആ ഉണ്ട് ആ രാവിലെ ഒരു പത്ത് മണിക്ക് തുറക്കും വൈകീട്ട് ആറ് മണിവരെയുണ്ട്

ആ സണ്ഡേയൊഴിച്ച് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്

ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ

മിസ്സിങ്ങാവുവാണേൽ മിസ്സിങ്ങാവുവാണേൽ നിങ്ങൾക്കത് കണ്ട്പിടിക്കാനുള്ള സമയം റീസ്റ്റോറെബിളായിട്ടുള്ള ടൈം തരും നിങ്ങൾക്ക് തീരേയും പറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കില് അതിന്റെ കോഷന് നമ്മൾ റിഡ് അതിൽ നിന്ന് ഡിഡെക്ററ് ചെയ്യും നമുക്ക് എല്ലാ ബുക്ക് എല്ലാ ബുക്ക്സ്സിന്റെ നമുക്കിവിടൊരു രെജിസ്റ്ററുണ്ട് അതിനകത്ത് ബുക്ക് വാങ്ങിയ ഡേറ്റും അതിന്റെ എമൗണ്ടുവെല്ലാം എഴുതീട്ടുണ്ട് വാങ്ങിയ വിലയൊക്കെ പക്ഷേ ഇപ്പോഴത്തെ വില ഉള്ള എമൗണ്ടായിരിക്കും വാങ്ങുന്നത് നമ്മൾ വാങ്ങിയപ്പോൾ നേരത്തെ വാങ്ങിയപ്പോൾ ഇരുന്നൂറ് രൂപക്ക് വാങ്ങിയതായിരിക്കും പക്ഷേ ഇപ്പോൾ അതിന്റെ വില ഇരുന്നൂറ്റൻപതാണെങ്കിൽ ആ ഇരുന്നൂറ്റൻപത് രൂപയും നമുക്ക് എടുക്കേണ്ടി വരും ആ മെമ്പര്ഷിപ്പെടുക്കാന് വേണ്ടി ഒരു ആധാര്കാര്ഡോ അത്പോലെ എന്തെങ്കിലുമൊരു ഐഡെന്റിഫിക്കേഷന് ഐ ഐഡെന്റിഫൈ ചെയ്യാനെന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് മതി ആ മതി നിങ്ങളുടെ ഫാമിലീപ്പെട്ട ആര്ക്കുവേണേലും ആ കാര്ഡ് കൊടുത്ത് വിട്ടാൽ മതി ആ അക്കൗണ്ടിലുവെടുക്കാം ഫാമിലീലുള്ളവര്ക്ക് കൊടുക്കവുള്ളൂന്ന് മറ്റ് പുറത്തുള്ളവര്ക്ക് കൊടുക്കാൻ പാടില്ലന്നുള്ളതാണ് ഫാമിലീലൊക്കെ ആരൊക്കെയുണ്ടോ അവര്ക്കും അവര്ക്ക് വന്നെടുക്കാം ആ മതി ആയിക്കോട്ടെ കുഴപ്പമില്ല ശരി